ഇപ്പോൾ എല്ലാ തരം പച്ചക്കറികളും ഉണ്ട് ആ നമ്മൾ ഇപ്പം ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളാണ് നമ്മൾ കൂടുതലായിട്ടും വിൽക്കുന്നത്

ആ ഇപ്പം നമ്മൾ ഓരോ കർഷകരുടെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്തു നിന്നാണ് നമ്മൾ പച്ചക്കറികളെല്ലാം മേടിക്കുന്നത് അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ നമ്മൾ അത് നേരിട്ട് പോയിട്ട് അവരുടെ അവിടുന്ന് നോക്കിയാണ് നമ്മൾ മേടിക്കുന്നത് അപ്പം പുറത്തുനിന്ന് നമ്മൾ വിഷം അടിച്ചൊന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല

സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെയായിട്ടില്ല നമുക്ക് നമ്മൾ എല്ലാം ജൈവം ആണിവിടെ കൊടുക്കുന്നത് വിഷം ഇല്ലാത്തതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് വില ഉണ്ടെന്ന് മറ്റേ സാദാ ഇതിനേക്കാളും കൂടുതലാണ് വില

ഒരു ഒരാഴ്ച്ചയൊക്കെ ഇരിക്കും നല്ലതാണെങ്കിൽ

സാമ്പിൾ തരാം നിങ്ങൾക്ക് മേടിച്ചിട്ടൊരു ഇത് നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾ പിന്നെ വന്നാൽ മതി അങ്ങനെ നമ്മൾ കൊടുക്കുന്നുമുണ്ട് പിന്നെ ഹോം സർവീസ് ഒക്കെ ഉണ്ട് ആ ഹോം ഡെലിവറി ഉണ്ട് ഇല്ല ആദ്യത്തെ സാമ്പിളിന് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും വന്ന് നമുക്ക് മേടിക്കാവുന്നതാണ് ആ എല്ലാം നമ്മൾ കൊടുക്കുന്നതാണ് അതൊരു കുറച്ചൊരു ആ ഒരൂ അഞ്ഞൂറ് ഗ്രാം ഒക്കെ തന്ന് വിടാം അത് അങ്ങനെ നോക്കിയിട്ട് പിന്നെയും വരണം ആ അര കിലോ വെച്ച് തരാം രണ്ട് ആ രണ്ടായിട്ട് നിങ്ങൾക്ക് അവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് തരാം ഇല്ലെങ്കിൽ നമ്മൾ ഓർഗാനിക് മാത്രമാണ് കൊടുക്കുന്നത് നിങ്ങൾക്കത് അങ്ങനെ നോക്കണമെങ്കിൽ നിങ്ങൾക്കത് തരാം രണ്ടും കൂടെ നോക്കിയിട്ട് ആ ഇന്ന് നമ്മളെ തൊട്ടടുത്ത് ആണെങ്കിൽ നമ്മളൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ സാധനം എത്തിച്ച് തരുന്നതാണ്

ആ ഓക്കെ ഓക്കെ ഓക്കെ